ഞാനേ പിന്നെ കൊച്ചിക്ക് പോകാൻ വേണ്ടി ഒരു ക്യാബ് ബുക്ക് ചെയ്തതാട്ടോ ഇത്ര നേരമായി ഇവിടെ കോഴിക്കോട് ഞാനിവിടെ ജംഗ്ഷനിൽ ഇവിടെ നിൽക്കുന്നത് ഇത്ര നേരമായി വരും വരുന്നേയില്ല അങ്ങനെയാണെങ്കി ആ ക്യാബ് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങള് ബുക്ക് ചെയ്തപ്പം നേരത്തെ പറഞ്ഞതാണല്ലോ വേഗം വരണമെന്ന് പക്ഷേ ഇത്ര സമയമായി എ എപ്പ എത്തേണ്ടതാണ് ഇത്രയും ലേറ്റ് ആയിട്ട് എത്തുവാണെങ്കിൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് ഒരു ഇൻറർവ്യൂ ഉണ്ട് ഒരു ഒരു ഓഫീസില് ഒരു ഇംപോർട്ടൻറ് ആയിട്ടുള്ള ഒരു ഇൻറർവ്യൂ ആണ് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തത് ബുക്ക് ചെയ്തപ്പോൾ നമ്മളോട് കൃത്യസമയത്ത് ഇന്ന സമയത്ത് വരണമെന്ന് പറഞ്ഞതല്ലേ ഡ്രൈവർക്ക് വരാൻ പറ്റില്ലെങ്കിൽ വേറെ ഡ്രൈവറെ അയക്ക് അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള ഏർപ്പാട് ആക്കും ഇത്രയും ഇതാക്കിയിട്ട് ഇങ്ങനെയാണോ നിങ്ങൾ ഏജൻസിന്ന് ഓരോരുത്തരെ നമ്മള് ബുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് വല്ലാത്ത ഇതാണല്ലോ നിങ്ങൾക്ക് നേരത്തെ പറയാമായിരുന്നു പിന്നെ ഇത് ആക്കണമെന്ന് നമുക്ക് എന്തായാലും വേണ്ട ഇനിയിപ്പോൾ ഇത്ര ഇതാക്കിയതല്ലേ നമ്മള് ഒരു ഒന്നുങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഡ്രൈവറെ പറഞ്ഞയക്കാം ആൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തത് മാറ്റി വേറെ ഒരു ഇതിൽ ആക്കാമായിരുന്നു ഒന്നും ചെയ്യാതെ നിങ്ങൾ ഈ അവസാന നിമിഷം നമ്മളെ വിളിച്ച് ചോദിക്കുമ്പം പറയുക അത് ഭയങ്കര ഇതാട്ടോ എന്തായാലും ഇനി അത് റദ്ദാക്കിയേക്ക് ക്യാബ് വേണ്ട ഇനി